ഹല്ലോ ചേട്ടാ വളരെയധികം നന്ദിയുണ്ട് ഇത്ര സുരക്ഷിതമായിട്ട് ഭദ്രമായിട്ട് നിങ്ങളെന്നെ ഇവിടെയെത്തിച്ചു നിങ്ങളെ പോലുള്ളവരെയാണ് ഈ രാജ്യത്തിനാവശ്യം ഈ ഓട്ടോക്കാരുടെ ഇടയിൽ ഇതുപോലെയുള്ള ആൾക്കാരെ ഉള്ളു വളരെയധികം അഭിനന്ദനാർഹമാണ് പ്രശംസനീയമാണ് നിങ്ങളുടെ പ്രവൃത്തി കാരണം ഇപ്പോഴത്തെ സാഹചര്യം നിങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ പലയിടത്തും ഈ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന ദുരനുഭവങ്ങൾ എത്രയാണെന്നറിയാമോ ചിലപ്പം ഒരു ശകലം ദൂരം യാത്ര ചെയ്യുന്നതിന് എത്ര രൂപയാണ് കൂടുതൽ വാങ്ങിക്കുന്നത് അറിയാമോ ഒരു അഞ്ഞൂറ് മി അഞ്ഞൂറ് മീറ്റർ ഒരു കിലോ മീറ്ററിനു താഴെ യാത്ര ചെയ്യുന്നതിന് അൻപതും അറുപതും നൂറും രൂപയൊക്കെ ചിലപ്പോൾ ഞങ്ങളോടു ചോദിക്കാറുണ്ട് അപ്പോൾ അവരുടെ ഓട് ഓട്ടോ ഓടിരൊ എത്ര ഹാർഷായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അറിയുമോ തട്ടിയും മുട്ടിയും ചാടിച്ചും ഓടിച്ച് ചേട്ടൻ വളരെ ഇതായിട്ട് ഞങ്ങളെ ഓടിച്ചു ഇവിടം വരെയെത്തിച്ചു കുറേ നന്ദിയുണ്ട് നല്ല ഇത്ര നല്ല അതിൻ്റെ ഇടക്കുള്ള ചേട്ടൻ്റെ സംഭാഷണമൊക്കെ വളരെ അഭിനന്ദനാർഹമാണ് ചേട്ടന് ഒത്തിരി നന്ദിയുണ്ട് നല്ല ഇതാണ് ചേട്ടൻ ഞങ്ങളെ ഇവിടെ എത്തിച്ചത് എല്ലാം സുരക്ഷിതമായിരുന്നു ചേട്ടാ ഒത്തിരി നന്ദി അതിനിടക്ക് കാപ്പി കുടിക്കാനും നിർ നിർത്തണമെന്നു പറഞ്ഞപ്പോൾ അവിടെ നിർത്തി ഞങ്ങൾക്കു നല്ലൊരു ഹോട്ടൽ കാണിച്ചു തന്നു അവിടെ എല്ലാം നല്ല നല്ല രീതിയിൽ ക്രമീകരിച്ചു തന്നു അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ട് എത്തി ആ വഴി എത്ര ഗട്ടർ നിറഞ്ഞ വഴിയായിരുന്നെങ്കിലും അത് ചേട്ടൻ അത്ര സുരക്ഷിതമായിട്ടാണ് ഞങ്ങളെ എത്തിച്ചത് വഴി ഓടിച്ചതും എല്ലാം ഒട്ടും ഒരു സ്പീഡ് എടുക്കാതെ ഒത്തിരി വേണ്ട രി രീതിയിൽ പതുക്കെ ഓടിച്ചു ഇവിടെത്തിച്ചു ചിലരൊക്കെ ഓടീര് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വീട്ടിലെത്തുമോ എന്നു തന്നെ പേടിയായിരിക്കും ചേട്ടൻ്റെ ഇത് ഒത്തിരി നന്ദിയുണ്ട് നന്ദിയോടെ ഓർക്കുന്നു ചേട്ടന് അൻപത് രൂപ കൂടുതൽ തന്നാലും അതൊരു നഷ്ടമല്ല നന്ദിയുണ്ട് ഇനി ഏതെങ്കിലും ഓട്ടം വരുവാണേ ചേട്ടനെത്തന്നെ ഞങ്ങൾ വിളിക്കുന്നതാണ് കേട്ടോ ചേട്ടാ നന്ദി